ആരോഗ്യപ്രവർത്തനങ്ങൾക്കായി നമുക്ക് ഒരുപാട് ചിലവുകളാണ് വരാറുള്ളത് നമുക്ക് സർക്കാർ അതിനെതിരെ സർക്കാർ നമ്മുടെ എല്ലാ മനുഷ്യരുടെ കയ്യിൽ സമൂഹത്തിൽ നിന്നും ടേക്സെന്ന രൂപേണ നമ്മുടെ കയ്യിൽ നിന്നു പൈസ സംഭരിച്ചു കൊണ്ടാണ് സർക്കാർ അതിനായിട്ടൊരു നീക്കിയിരിപ്പു വെക്കുന്നത് ഈ ആരോഗ്യമേഖലകളിലേക്കു വേണ്ടുന്ന സാമ്പത്തിക നിലം ആദ്യം അത്യാവശ്യമാണ് കൊടുക്കേണ്ടത് കാര്യം എപ്പോഴും ആരോഗ്യമേഖലകളെപ്പോഴും മെച്ചപ്പെട്ട് എപ്പോഴും ഓരോ കാര്യങ്ങൾ കൊണ്ടു വരേണ്ടതും ഉള്ള അത്യാവശ്യമാണ് കാര്യം നമുക്കെപ്പോഴും മനുഷ്യൻ്റെ ആരോഗ്യമാണ് ആദ്യം പ്രധാനമായി കാണേണ്ടത് അതിനാൽ തന്നെ അതിനെതിരെ കുറേ പൈസ ചിലവാക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് നമ്മുടെ മനുഷ്യർ തന്നെയാണ് ഇപ്പം മരുന്നിൻ്റെ വില കൂട്ടുന്നുണ്ട് അതിലുപരി നമ്മൾ മനുഷ്യർ തന്നെയാണ് പൈസ സമൂഹത്തിൽ നിന്നാണ് പൈസ അങ്ങോട്ടു സർക്കാരുടെ അതിൽ കിട്ടുന്നത് ഈ പബ്ലിക്കിൽ നിന്നു കിട്ടുന്ന പൈസ തന്നെ ടാക്സിൽ നിന്നു മരുന്നിൻ്റെ വില കൂട്ടിയും പല തരം പേരുകളിലൂടെ സർക്കാരതിന് സ് എടുത്തു സർക്കാരതിനൊരു പല രീതിയിൽ നമ്മളതിനു നീക്കിയിരുപ്പു വെച്ചാണ് ഈ ആരോഗ്യപരമായ കേന്ദ്രങ്ങളിലേക്കു പണം അതിൻറ്റേതായ കറക്റ്റായ രീതികളിൽ കൊണ്ടെത്തിക്കാൻ കഴിയുന്നത് അതാണ് നമ്മളുടെ ആ ആരോഗ്യപരമായ രീതികളിലെപ്പോഴും കറക്റ്റായിട്ട് പണമെത്തിയാലെ നമ്മുടെ എല്ലാവരുടെയും ജീവത്തിൽ ആരോഗ്യമെപ്പോഴും സുരക്ഷിതമായിരിക്കൂ